ഹലോ ഇത് ആമസോൺ കസ്റ്റമർ കെയർ അല്ലേ ഞാൻ ഇന്ന് എൻ്റെ എനിക്ക് വേണ്ടിയൊരു സാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതു ലഭിച്ചു പക്ഷേ അത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അത് കീറിയ നിലയിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ എനിക്കത് തിരിച്ച് നൽകാൻ തിരിച്ച് അയക്കണം എന്നുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ സാരി നം എനിക്ക് ഇഷ്ടപ്പെട്ട കളറും അല്ല ലഭിച്ചിരിക്കുന്നത് അപ്പം നല്ല ഞാൻ ആവശ്യപ്പെട്ട കളറിലുള്ള ഒരു സാരി കീറ നല്ല സാരി എനിക്ക് തിരിച്ച് വേണം താനും അപ്പോൾ ഇത് സെൻറ്റ് തിരിച്ച് അയക്കുകയും വേണം അതിനായിട്ട് എന്തു ചെയ്യണമെന്ന് ഒന്നു പറഞ്ഞു തന്നാൽ കൊള്ളാമായിരിക്കും